ഓക്കെ ഞാനൊരു കുമരകത്തുനിന്നാണേ വിളിക്കുന്നതേ ആ സെൻറ്റ് ജോർജ് ട്രാൻസ്ഫോർമറിൻ്റെ അടുത്തുനിന്നാണ് വിളിക്കുന്നേ സെൻറ്റ് ജോർജ് ട്രാൻസ്ഫോർമറിൻ്റെ കീഴിലുള്ള ഒരു വീട്ടിലേക്കൊരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പം അതിന് പുതിയ വീട് ഇപ്പോൾ പണിതുകൊണ്ട് ഇരിക്കുകയാ അപ്പോൾ അതിന് മുന്നേ നമ്മളെ എടുക്കണമല്ലോ തേപ്പൊക്കെ ആവുന്നതിന് മുന്നേ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ വീടിന് നമ്പര് ആയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പര് എട്ടാം വാർഡിലാണ് വെരുന്നേ കുമരകം പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലാണ് വെരുന്നതേ അവിടെ വന്ന് തന്നെ ചെയ്യണം അല്ലേ നമുക്ക് ഓൺലൈൻ ഓൺലൈൻ ആയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ ഓ അതെ അല്ലേ ആ അല്ല ഞാന് ആ ഓ അത് ശരി അറിയാം അറിയാം അല്ല ഞാന് കാരണം എൻ്റെ കസിനായിരുന്നു വീട് പണിയുന്നതേ അപ്പോൾ അവർ ഇവിടില്ല അവർ പുറത്താണ് അപ്പോൾ ഞാനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഞാൻ വന്നാൽ മതിയോ അവരുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഉടമ തന്നെ വരണം അപ്പോൾ അവർക്ക് ഇപ്പോൾ ലീവ് അവരിപ്പോൾ പുറത്താണല്ലോ അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് ലീവില്ല അതാ ഞാൻ ചോദിച്ചത് ഓൺലൈൻ ആയിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു അല്ല നമ്മൾ ഇപ്പം അതിനായിട്ട് അത്രയും പൈസ മുടക്കി എങ്ങനെയാണ് നമ്മൾ യു ക്കെന്നൊക്കെ വരുന്നത് അല്ല അതിന് അല്ല വീടിൻ്റെ ഉടമ തന്നെ ചെയ്യണം എന്നില്ലല്ലോ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളില്ലേ ഇപ്പോൾ ഇത്രയും വർഷം ആയില്ലേ എന്നിട്ട് കെ എസ് ഇ ബി അതിന് മാത്രം ഒന്നും വികസിച്ചിട്ടില്ലേ അല്ല എൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പഴത്തേക്കും അവരുടെ പേരിലോട്ട് മാറ്റാനുള്ള സംവിധാനം ഉണ്ടോ അതെന്ത് പരിപാടിയാണ് സാറേ ഞാൻ അവിടെ ഞാൻ അവിടെ വന്ന് കഴിഞ്ഞിട്ട് നടക്കത്തില്ലെന്ന് പറയാനാണെങ്കിൽ പിന്നെ ഞാൻ അവിടം വരെ കഷ്ടപ്പെട്ട് വരേണ്ടല്ലോ ഞാൻ ഇപ്പോൾ കോട്ടയത്തുനിന്ന് അവിടംവരെ വരണം അയ്യായിരം രൂപ എന്നാത്തിനുള്ളതാ അയ്യായിരം രൂപയാണോ ഒരു ലൈൻ എടുക്കാനായിട്ടുള്ള ഫീസ് ഞാൻ ഞാനെന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എനിക്ക് നിങ്ങൾ പറഞ്ഞതിൽ അത്ര വിശ്വാസ്യത തോന്നുന്നില്ല ആ വേറെ എന്തെങ്കിലും വരുമോ വേണ്ടി വരുമോ ഇനി അവിടെ വന്ന് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആവശ്യം പറയോ ആ അതുപോലും ഇല്ലേ കെ എസ് ഇ ബില് ആ ഹാ ഹാ ഓക്കെ അല്ല ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ആധാർ കാർഡ് ഇപ്പം ആരുടെയാ എൻ്റെയും ഹൗസ് ഓണറുടെയും രണ്ട് പേരുടെയും എടുക്കണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി ഓക്കെ ഓക്കെ അപ്പം നാളെ കാണാം